എറണാകുളം ക്യാബ് ഏജൻസിയല്ലേ ഞാൻ ഇവിടെ എറണാകുളം ലുലുമാളിൻ്റെ അവിടുന്ന് വിളിക്കുന്നതാണ് എനിക്ക് അർജന്റായിട്ട് ഒന്ന് അമൃത ഹോസ്പിറ്റലിലേക്ക് പോണമായിരുന്നു ഒരു പത്ത് മിനിറ്റും കൊണ്ട് എങ്ങനെയാണെങ്കിലും അവിടെ എത്തണം അപ്പം നിങ്ങളുടെ ക്യാബ് എങ്ങാനും അങ്ങനെ അതായത് പത്ത് മിനിറ്റ് കൊണ്ട് എത്തിക്കാനുള്ള അങ്ങനെ ആരെങ്കിലും അടുത്ത് പിന്നെ ഏതേങ്കിലും വണ്ടിയുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാൻ പറ്റുവൊ അങ്ങനെയാണെൽ എനിക്ക് ഉപകാരമായിരുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെൽ എൻ്റെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റല് പെട്ടന്ന് വയറ് വേദന ആയിട്ട് കൊണ്ട് പോയതാണ് അപ്പോൾ അഡ്മിറ്റാണെന്ന് പറഞ്ഞ് അപ്പം അവളേ എൻ്റെ ജോലി എൻ്റെ കൂടെ ജോലി ചെയ്യുന്നതാണെ അപ്പം അവളുടെ കൂടെ വേറെ ആരുമില്ല അപ്പം ഇപ്പം ഹോസ്പിറ്റലീന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരു പ എന്തോ അർജന്റായൊരു ഒരു പത്ത് മിനിറ്റും പത്ത് മിനിറ്റിനുള്ളിലിവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ക്യാമ്പിൻ്റെ ബുക്ക് ചെയ്ത് തരാൻ പറ്റുവാണെങ്കിൽ അത്രേം നല്ലതായിരുന്നു പക്ഷെ ബുക്ക് ചെയ്ത് വന്ന് പിന്നെ അവർ വരുബോഴ്ത്തേക്ക് ഒരു സമയകുമല്ലേ അപ്പം നിങ്ങൾ അപ്പം ഒരു ഓട്ടോ ആണെങ്കിലും മതി ഓട്ടോയൊ കാറോ എന്താണെങ്കിലും കുഴപ്പമില്ല ഒന്ന് വേഗം ഒന്ന് റെഡിയാക്കി തരുവാണെങ്കിൽ ഉപകാരമായിരുന്നു എനിക്ക് പെട്ടന്ന് ഹോസ്പിറ്റലിൽ എത്തണം അതുകൊണ്ടാണ്